ആ ഇത് ദേവി ബുക്ക്സ്റ്റാളല്ലേ അപ്പം ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് ബുക്കുകളുടെ കളക്ഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു താൽപ്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ബുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ബുക്കിനു ഡിസ്ക്കൗണ്ട് ഉണ്ടോ അതോ എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് എല്ലാം വേണം പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക സാഹിത്യം അതുപോലെതന്നെ കവിതകൾ അതുപോലതന്നെ ഒരുപാട് എഴുത്തുകാരന്മാരെപ്പറ്റി പിന്നെ ജീവചരിത്രം പിന്നെ മഹാത്മാഗാന്ധിയുടെ അങ്ങനെ കുറച്ച് കുറച്ച് ബുക്കുകൾ ഉണ്ടല്ലോ നമുക്ക് ഒരു കളക്ഷൻ ആയിട്ട് വേണം അപ്പോൾ നമ്മളൊരു സെറ്റായിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഡിസ്ക്കൗണ്ട് നമുക്ക് വരുന്നത് രണ്ടും സാധിക്കും അപ്പം നമ്മൾക്കിങ്ങനെ ഈ ഈ എന്താ പറയുക ഈ സമയത്ത് നമുക്ക് എന്തോ ഡിസ്ക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഓഫറായിട്ടോ അങ്ങനെ വല്ലതും നമുക്ക് കിട്ടുന്നുണ്ടോ

ആ അതെ എനിക്ക് ഇപ്പോൾ ലൈബ്രറിലേക്ക് കുറച്ചു പുസ്തകങ്ങളുടെ കളക്ഷൻ ആവശ്യമുണ്ട് കാരണം കുറേയൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പം അതിലേക്ക് കുറച്ച് എൻ്റെ സെക്ഷനിലേക്ക് ബുക്കുകൾ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് ആ എന്താണെന്നു വച്ചാൽ ഞാനിപ്പോൾ വിളിച്ചതെന്താണെന്നറിയുമോ ഇപ്പം നമ്മുടെ ഈ പരിസരത്തുള്ള ബുക്ക്സ്റ്റാളിലൊക്കെ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെച്ചെന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഞാനുദ്ദേശിച്ച തരത്തിലുള്ള ബുക്കുകളുടെ കളക്ഷൻ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എൻ്റെയൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ബുക്ക്സ്റ്റാൾ ഇത്തിരി ദൂരത്താണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ വന്ന് കളക്റ്റ് ചെയ്തോളാം നിങ്ങൾക്ക് അതോ ഓർഡർ നമ്മൾ ഓർഡർ ചെയ്താൽ ഇവിടെ കൊണ്ടുത്തരുന്ന ഏർപ്പാടുണ്ടോ ഡെലിവറി ചെയ്യാനായിട്ട് വല്ല വഴിയും ഉണ്ടോ ചെയ്യുന്നുണ്ടല്ലേ ഡെലിവറി ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഈ ഡെലിവറിയുടെ ഫണ്ട് വേറെയുണ്ടോ അതോ ഡെലിവറിയുടെ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ ഡെലിവറിക്ക് നമ്മൾ വേറെ പൈസ തരണോ അതോ ഡെലിവറി ഫ്രീയായിട്ടാണ് തരുന്നത് ഒരു സെറ്റായിട്ട് ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ എനിക്ക് വേണ്ട ബുക്കുകളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരു ലിസ്റ്റിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കതൊന്ന് ഇതുപോലെ ഡെലിവറി ചെയ്തു തന്നാൽമതി അപ്പോൾ ഞാനെല്ലാം ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു ശരിയെന്നാൽ ഓക്കേ